മലയാള ഭാഷ ടെലിവിഷനിലും റേഡിയോയിലുമൊക്കെ നല്ല ഭാഷയായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് മാധ്യമങ്ങളിലും ഭാഷയെ ഒരിക്കലും അടിച്ചമർത്തപ്പെട്ടിട്ടില്ല മലയാളം ന്യൂസ് പേപ്പർ എടുത്തോ മലയാള മനോരമ മാതൃഭൂമി ദേശാഭിമാനി എല്ലാം മലയാളം നല്ല സ്പുഷ്ടമായിട്ടും സ്പഷ്ടമായിട്ടും ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ അതേപോലെ ടെലിവിഷനിൽ ടെലിവിഷനിൽ സിനിമകളുണ്ട് അതേപോലെതന്നെ സീരിയലുകൾ ഉണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ഏതൊരു മനുഷ്യനും ഏത് ഏത് അതായത് മലയാളം തന്നെ പല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് മ്മ് പല സ്ഥലത്തും പല ആ അതിന്റെ സ്ലാങ്ങിന് ഒരു വേരിയേഷൻ ഉണ്ട് എന്നാലും മലയാളം ഒന്നാണ് പക്ഷേ പക്ഷേ എന്താ പറയുക അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ പാട്ട് റിയാലിറ്റി ഷോകള് സീരിയലുകള് ഇതിലൊക്കെ അതായത് അത് നശിച്ചു പോകാതെ നല്ല നല്ല ഇത് ഓരോ ചാനലുകൾ അതിനെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ

റേഡിയോയിലും നല്ല നല്ലതാണ് കെട്ടോ നമ്മുടെ ദേ നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങള് നമ്മുടെ നാട്ടിലെ കാര്യങ്ങള് നമ്മുടെ നാട്ടിലെ ഓരോന്നിന്റെ വില എത്രയാണ് അതൊക്കെ അറിയാൻ റേഡിയോ ഭയങ്കര സഹായമാണ് അതിലെ സ്ഫുടമായിട്ട് മലയാളമാണ് അവര് പറയുന്നത് വ്യക്തമായ മലയാളം അതേപോലെതന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുകള് ന്യൂസ് പേപ്പറുകളില് പല ന്യൂസ് പേപ്പറും ഉണ്ട്